എനിക്ക് ഫോട്ടോഗ്രാഫി ഇങ്ങനെത്തെ പരിപാടിയിൽ എന്താ ഇങ്ങനെ ഒരു ഔപചാരികമായിട്ട് ഒരു പരിശീലനം നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാനായിട്ട് ഉള്ളൊരു നൈപുണ്യം എന്നൊക്കെ പറയുവാണെങ്കിൽ നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോക്കസും നല്ലൊരു ക്യാമറയും പിന്നെ അത്യാവശ്യം ആങ്കിളും പിന്നെ അത്യാവശ്യം ഒക്കെ അറിയുവായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ അതുപോലെത്തന്നെ എഡിറ്റ് ചെയ്യുക ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് നമ്മുടെ നിന്നാണ് കഴിവ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായാൽ അവരുടെ ഫോണിൻ്റെ ക്ലാരിറ്റി അല്ലായിരിക്കും ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് കൂടി കുറച്ച് ഫോക്കസും ക്യാമറ ഓറിയൻറ്റഡും ആയിട്ടുള്ളൊരു ഫോൺ ആണല്ലോ നമ്മുടെ ഐഫോൺ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ആൻഡ്രോഡ് ഇപ്പം ഒരു ഐഫോൺ പുതിയതായിട്ട് ഒരാൾ മേടിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അവർ എന്താ പറയുന്നത് നേരെ പോയിട്ട് ക്യാമറയൊക്കെ അങ്ങനെ എഡിറ്റിങ്ങും പെട്ടെന്ന് പരിപാടികളൊക്കെ പഠിച്ച് നല്ലൊരു ക്യാമറ ആംഗിൾ നല്ല രീതിയിൽ അവരുടെ കഴിവ് മെച്ചപ്പെടുത്താൻ സാധിക്കും അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നല്ലൊരു ഫോണും നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ കഴിവും മെച്ചപ്പെടും പിന്നെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒരു കഴിവുള്ള ബാക്കിയുള്ളവർക്ക് നമുക്കൊരു കഴിവുണ്ടെന്ന് അറിയുമ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടുത്തിയാൽ അവർക്ക് കുറച്ച് പ്രയോജനങ്ങൾ ഉണ്ടാക്കാനായിട്ടും സാധ്യമാകും അങ്ങനെ വരുമ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് കരുതുന്നത് കരുതുന്നത് പിന്നെ നമ്മുടെ പിന്നെ പരിശീലനം ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഫോട്ടോഗ്രാഫർ ആകാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് പിന്നെ ഇങ്ങനൊരു കഴിവ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മുടെ കഴിവ് വളർത്താനായിട്ട് പിന്നെ പ്രേരണ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് അവൻ നല്ലതായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും നമുക്ക് എടുക്കണം എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ ഫോണിൻ്റെ കാര്യം വരുമ്പഴത്തേക്കും നമുക്ക് അല്ല ഫോണല്ലേ വേറൊരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ക്യാമറയുടെ ഒരു ക്ലാരിറ്റി എടുത്ത് നമുക്ക് കിട്ടില്ലല്ലോ ഒറിജിനൽ ഒരു ക്യാമറയുടെ അപ്പം അത് ഒരു വിഷയമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊരു വിഷ ഒരു കാര്യമാണ് ഫോട്ടോഗ്രഫീല് കുറച്ച് പ്രശ്നം അങ്ങനെ ഫോട്ടോഗ്രഫീല് എന്താ പറയ്ണത് നൈപുണ്യം നേടാനായിട്ട് സാധ്യമാക്കില്ല മാവില്ല അതുപോലെ അപ്പം അവനാണ് എൻ്റെ പ്രേരണ അപ്പം ചെക്കനാണെങ്കി അവിടെ പോയിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ ഈ ഡാർക്ക് അത്യാവശ്യം എന്താ പറയ്ണത് ഈ നമ്മുടെ ദാവൂലെ സൂര്യോദയം ആവൂലേ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ചെക്കൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നും നമ്മൾ അങ്ങനെ എടുത്താലും ചെക്കൻ ഒരു അത്യാവശ്യം തന്നെ പ്രൊഫഷണൽ ആയിട്ടൊരു നല്ലതായിട്ട് ചെയ്യുന്ന ഒരു പുള്ളികാരൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതില്ലാലോ അതൊരു കാര്യമാണ് ആ അത്രയുള്ളൂ